ചെടി കുഴിച്ചിടാൻ ആദ്യം നമ്മൾ കടയിൽനിന്നൊക്കെ പോയി ചട്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് പിന്നെ മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മണൽ ഇതൊക്കെപ്പാടെ മിക്സ് ചെയ്ത്കാണ്ട് ഒന്നിച്ച് കുറച്ച് മണ്ണും കൂട്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെടി ഉണ്ടാക്കാറ് ചട്ടിയിലൊക്കെ ഇതാക്കിയിട്ട് അത് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് പിന്നെ അതിന് വളംവാർന്ന പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ അപ്പോൾ കുഴിച്ചിടണ സമയത്ത് അതിൻ്റെ വളത്തിൻ്റെ അങ്ങനെ മിക്സ് ചെയ്ത്കാണ്ട് ഇതാക്കിയിട്ട് അതിനെ കുഴിച്ചിടാം പിന്നൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ആ ചട്ടിയിലുള്ള മണ്ണൊക്കെയൊന്ന് ഇളക്കി അമർന്നുനിൽക്കണേന് അങ്ങനെ ഇതാക്കി കൊടുക്കണം പിന്നെ ചകിരിച്ചോറ് ചകിരിൻ്റെ തുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തണുപ്പിനങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇപ്പം നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തീന് ദിവസം ഒന്നരാടം എന്ന് പറയുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നമ്മൾ നല്ലവണ്ണം നോക്കുകയാണ് വെച്ചെങ്കിൽ അതിനുള്ള ഇത് ഉണ്ടാവും പിന്നെ ഒരു കൊല്ലം കൊല്ലം അത് ഇതേമാതിരി കൊല്ലത്തിൽ കൊല്ലത്തിൽ അത് ഇങ്ങനെ നമ്മൾ വെട്ടി മുറിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ വേറെ തുവ്വ് പൂക്കളൊക്കെ വരണം എന്ന് വെച്ചെങ്കിൽ വേറെ ഇത് വരണം എന്ന് വെച്ചെങ്കിൽ കമ്പ് വരണം എങ്കിൽ നമ്മളത് മുറിച്ച് കൊടുക്കണം എന്നെങ്കിലേ ഈ തൂവും കാര്യങ്ങളൊക്കെ വരുള്ളൂ പൂവിടുകയാണെങ്കിലും തന്നെ അതേമാതിരി നല്ലവണ്ണം ചാണകപ്പൊടി ചാണകം പച്ച ചാണകം പച്ച ചാണകവും ഈ വേപ്പ് പുണ്ണാക്കും ഒക്കെപ്പാടെ മിക്സ് ചെയ്ത്കൊണ്ട് പിന്നെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പതിനഞ്ച് ദിവസം അടച്ച് വച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ചെടിക്ക് നല്ല പൂവും ഇതൊക്കെ വരും